നമുക്ക് ഏതൊരവസ്ഥയിൽ വേണങ്കിലും നമുക്ക് യാത്ര ചെയ്യാം പറ്റും കാരണം യാത്രകള് തന്നെ നമുക്ക് സന്തോഷം വരുമ്പളും ദുഃഖം വരുമ്പളും നമ്മള് ഒറ്റക്കായി തോന്നുമ്പോഴെല്ലാം നമുക്ക് ഇപ്പോഴും യാത്ര പോവാൻ തോന്നുന്നതാണ് യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഏകാന്തതയിൽ നിന്ന് പുറത്ത് പോവാനുള്ള ഒന്നല്ല യാത്ര എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കാനും പല സാഹചര്യങ്ങളും മനസ്സിലാക്കാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് യാത്ര യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹ ഒരു സാഹചര്യത്തിൽ മാത്രം പോവാം അതെന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങള് അനുസരിച്ചിരിക്കും ഇപ്പം ഒരു വ്യക്തിക്കിപ്പോൾ സങ്കടം വരുമ്പോഴാണ് യാത്ര ചെയ്യാൻ താൽപര്യം ആണെങ്കിൽ സങ്കടം വരുമ്പോഴ് യാത്ര ചെയ്യുന്നു സന്തോഷമായിട്ടാണെങ്കിൽ യാത്ര ചെയ്യാൻ താൽപ്പര്യം ആണെങ്കിൽ സ സന്തോഷമായിട്ടും യാ യാത്ര ചെയ്യുന്നു അങ്ങനെ ഒറ്റപ്പെടാൻ താൽപ്പര്യം ആണെങ്കില് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ യാത്ര ചെയ്യുന്നു അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് യാത്രയിലൂടെയാണ് നമ്മളോരോ കാര്യങ്ങൾ പഠിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മള് എപ്പോഴും ഒരേ സാഹചര്യത്തികെഎൽ നമ്മളാ അതിൽ തന്നെ ഒതുങ്ങി കൂടും നമ്മൾ നമ്മടൊരു കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്താണ് ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും യാത്രകള് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ യാത്രകൾ ചെയുന്നത് വളരെ നല്ലതാണ് യാത്രകളെന്ന് പറയുന്നത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകാൻ എന്നല്ല നമ്മുടെ നമുക്കൊരു സമാധാനപരമായി നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്കൊരു തീരപ്രദേശമാണെങ്കിൽ അങ്ങോട്ട് പോരും മലയോര പ്രദേശമാണെങ്കിൽ അങ്ങോട്ട് പോകും അങ്ങനെയുള്ള പല സാഹചര്യത്തിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും യാത്ര എന്ന് പറയുന്നത് അങ്ങനെ വാ വാഹനത്തിൽ മാത്രം പോകാവുന്ന ഒന്നല്ല കാൽനടയായിട്ട് എത്രയോ പേര് യാത്ര ചെയ്യുന്നു ഇപ്പോൾ സൈക്കിൾ മേൽ എത്ര പേര് യാത്ര ചെയ്യുന്നു പല ഉപാധികൾ കൂടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും യാത്ര എന്ന് പറയുന്നത് അങ്ങനെ വാഹനങ്ങളിൽ മാത്രമായിട്ട് നമ്മള് പോകുന്ന ഒരു ഇതല്ല നമ്മള് എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത യാത്ര ഇപ്പോഴും നല്ലതാണ് നമുക്ക് പല കൂട്ടുകാരെ കണ്ടുമുട്ടാനും പല വ്യക്തികളെ കണ്ട് മുട്ടാനും അവർക്കിടയിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ കാണാനും നമുക്ക് സാധിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം യാത്രയെപ്പോഴും നല്ലതാണ് നമുക്ക് ഏറെ സന്തോഷകരമായ കുറെ ഏറെ നിമിഷങ്ങൾ നമുക്ക് യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്നു